ഞാൻ കൂടുതൽ സമയവും വരയ്ക്കാൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ബോറടിച്ച് ആരോടും സംസാരിക്കാറില്ല മൂഡൗട്ടായി ഫുള്ള് മൂഡ് ഔട്ടായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാന് കൂടുതൽ വരയ്ക്കുന്നത് എനിക്ക് വരയ്ക്കാൻ തോന്നുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ എന്ന് വെച്ച് ആരും മിണ്ടയില്ലാതെ എന്ന് വെച്ച് നമുക്ക് തോന്നും നമുക്ക് മറ്റൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കെല്ലാം തുറന്ന് പറയാൻ മറ്റൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നല് വരും മനസ്സില് അപ്പോൾ ആ സമയത്ത് ഞാന് കൂട്തലും പടം വരയ്ക്കാറാണ് ചെയ്യാറ് ഞാൻ കൂടുതൽ പടം വരയ്ക്കുമ്പോൾ കൂടുതൽ ഞാൻ ചെയ്യുന്നത് പെൻസിൽ ഡ്രോയിങ് ഡ്രോയിങ്ങാണ് ഞാ കൂടുതൽ ചെയ്യാറ് പെൻസിൽ ഡ്രോയിങ്ങാണ് എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങാണ് കൂടുതൽ താല്പര്യം ഞാൻ സ്കൂളിൽ നിന്ന് ഡ്രോയിങ് കോമ്പറ്റീഷനിൽ പോകാറുണ്ട് പിന്നേ പള്ളിയിൽ നിന്ന് ഡ്രോയിങ് കോമ്പറ്റീഷന് പോകാറുണ്ട് ഏ ഗ്രേഡത് കിട്ടും പൈസ ആണ് നമ്മള് സ്റ്റേറ്റ് ലെവല് വരെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻറ്റൊരു ലൈഫില് ഒരു ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ നമ്മള് ലൈഫില് ഭാഗമായിട്ട് കാണുമ്പോൾ നമ്മള് അതിന് വേണ്ടി സമയം മാറ്റിവെക്കും നമുക്ക് തോന്നും മാറ്റിവെക്കണമെന്ന് നമ്മള് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നൂലെ അതിന് ഇത്ര സമയം മാറ്റിവെക്കണം അതേപോലെ ഇതിന് ഞാ മാറ്റി വെക്കും കുറെ സമയം ഒരു ദിവസത്തിലൊരു ഒരു ഒരുമണിക്കൂറെങ്കിലും മാറ്റിവെക്കും ഒരുദിവസം ഇതിന് ഇത് ഇത് ഞാന് കൂട്തല് സമയവും വരയ്ക്കാൻ നിൽക്കണം എങ്കിൽ രാവിലെ ആയിരിക്കും വെളുപ്പിന് അല്ലെങ്കിൽ രാത്രിയിൽ ആയിരിക്കും അങ്ങനെ ഉള്ള സമയങ്ങളായിരിക്കും ഞാൻ കൂടുതൽ പടം വരയ്ക്കുന്നത് എൻ്റെ കൂട്ടുകാരന്മാര് പടം വരച്ച് കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ കേൾക്കാറില്ല കാരണം ഒന്നുമില്ല കാരണം അവര് പറയുമ്പോൾ ഒരുമാതിരി ആവും പക്ഷെ വേറാരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് പറയുമ്പോൾ ഞാൻ വരച്ചുകൊടുക്കാറുണ്ട് ഇപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ നമ്മുടെ പള്ളീലച്ചൻ ഫാദർ പറയാറുണ്ട് എന്നെങ്കിലും ഒക്കെ ഈശൊയുടെ പടം വരച്ചുകൊടുക്കാൻ എന്നെങ്കിലും ഇത് പ്രാഞ്ചി കുടുംബകൂട്ടായ്മ ഉണ്ട് പ്രാഞ്ച് കൂട്ടായ്മയുടെ പേരൊന്ന് ഡിസൈൻ എഴുതികൊടുക്കാൻ ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ അത് വലിയ സന്തോഷം എനിക്ക് സന്തോഷമാണ് കാരണം എൻറ്റൊരു ഹോബ്ബി ആണത് അപ്പോൾ എനിക്കത് ചെയ്യാൻ വളരെ ഇൻട്രെസ്റ്റാണ് അങ്ങനെ ഞാൻ ചെയ്തുകൊടുക്കാറുണ്ട് ഈ വരയ്ക്കുന്നത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ കാണും അതാണെൻ്റെ പ്രത്യേകത പിന്നെ എനിക്ക് വരയ്ക്കാൻ തോന്നാത്ത ദിവസങ്ങള് അന്നാണെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും തിരക്കുകളായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തോ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പെട്ടന്ന് ഉള്ള എന്തരെങ്കി പ്രാർത്ഥന എന്തെങ്കിലും എമർജൻസി കേസ് അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല പിന്നെ വരയ്ക്കാൻ പറ്റാത്തത് ഇമോഷണലി ഡാമേജും തകർന്ന് എന്തെങ്കിലും വിഷമം കൊണ്ട് ഫുള്ളായിട്ട് ഡാമേജ് ആകുമ്പഴ് വരയ്ക്കാൻ തോന്നാത്തത് അല്ലാതെ ഞാൻ എല്ലാ ദിവസവും ഒരു ഒരുമണിക്കൂർ എങ്കിലും മാറ്റിവെക്കും വരക്കാൻ വേണ്ടി ഒന്നും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ എൻ്റെ പേരെങ്കിലും ഒന്ന് ഡിസൈൻ എഴുതി വരച്ച് ചെയ്യാറുണ്ട് എന്തെങ്കിലും ക്രീയേറ്റീവായിട്ട് നമുക്ക് ചെ നക്കെ തോന്നാറുണ്ട് ഇപ്പോൾ ആർട്ട് വർക്ക് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടമ്പോലെന്ന് പറഞ്ഞാൽ എന്തെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ മതി എന്തും എന്ത് ആർട്ട് വേണെങ്കിലും കാണാന് പറ്റും ഇപ്പോൾ പേപ്പർ ക്രാഫ്ട് ചെയ്തിട്ട് അതില് വരയ്ക്കുക ഫോട്ടോ ഫ്രെയിം ഫോട്ടോ വരച്ചിട്ട് ഫ്രെയിം ആക്കി ഇടുക ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടാണ് ഞാൻ കൊറോണ ടൈമിലാണിത് കൂട്തല് പഠിച്ച് അറിഞ്ഞ് അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അന്നേരം അപ്പോൾ എനിക്കതൊര് എൻ്റെ ഹോബ്ബി ആയിരുന്നു കൊറോണ ടൈമിൽ നമുക്ക് ആരുടെ അടുത്ത് മിണ്ടാനോ ആരുമായിട്ട് ഇറങ്ങി നടക്കാന്ള്ള സാഹചര്യം ഇല്ലാത്തപ്പോഴാണ് നമ്മള് ഈ ഇത് ഇതേപോലത്തെ ക്രീയേറ്റീവായിട്ടുള്ള തിങ്കിങ്ങ് എല്ലാ കൂട്തലാൾക്കാരും മിക്കവാറും കൊറോണ ടൈമിലാണെന്ന് തോന്നുന്നു വരയ്ക്കാനായാലും ആർട്ട് വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാന് കൂട്തലും എടുക്കുന്നത് വരയ്ക്കാനാണ്